ആ ഹലോ ഒരു എ സി മെക്കാനിക്ക് ആണോ ആ ഞാൻ എൻ്റെ വീട്ടിൽ എ സി വർക്ക് ചെയ്യുന്നില്ല രണ്ടു ദിവസായിട്ട് എന്തോ ഒരു അതിൻ്റെ എയർ കണ്ടിഷന് എന്തോ പ്രശ്നം ഉള്ളത് പോലെ ഞങ്ങൾ ഇപ്പോൾ ഇത് ഇത്രയും ചൂട് സമയമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എ സി ഇപ്പോൾ വേടിച്ചിട്ട് കുറച്ചു കാലമെ ആയുള്ളു പെട്ടെന്ന് ഇത് എന്താണ് പറ്റിയതെന്ന് നമ്മൾക്കറിയില്ല ഓക്സിജൻ്റെ ആ അതെ അതെ അതെ ആണ് അത് ഞാൻ എന്തുവാണ് കൂട്ടി നോക്കാമേ ഞാൻ എ സിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഇല്ല കൂളിംഗ് ഒന്നും കറക്ട് ആയിട്ടൊരു നല്ലത് മുന്നേ ഞാൻ വേടിച്ച സമയത്തുള്ള തണുപ്പൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ ആണോ ആ കാരണം ഇത് ഇപ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ ഇതിപ്പോൾ ഞങ്ങൾ എന്തുവാണ് കാവനാടായിട്ട് തന്നെ കാവനാട് അവിടെ എത്തുമ്പോൾ എന്നെയൊന്നു വിളിക്കാൻ പറ്റുവോ ഞാൻ അന്നേരം കറക്ട് ആയിട്ട് പറഞ്ഞു തരായിരുന്നു ആണോ ആ ഒ ഓ ആ കുഴപ്പമില്ല ഒരു വൺ ആ ഒക്കെ ഒരു ആൻഡ് ഹാഫ് ഒക്കെ എടുത്തു വന്നാലും മതി അതിന് കുഴപ്പം ഇല്ല എനിക്ക് കാര്യം ഇത് ഇപ്പോൾ രണ്ട് ദേവസ ഈ നമ്പരിൽ വിളിച്ചാൽ മതി ഇത് ഇപ്പോൾ രണ്ട് ദിവസായി കേട്ടോ അതാണെ നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കൂളിംങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കി പിന്നെ ഇനി എന്തെങ്കിലും വേടിച്ചിട്ടു കുറച്ചു നാളല്ലെ ആയുള്ളൂ എല്ലാം കൈയിലുണ്ട് എല്ലാം കൈയിലുണ്ട് എല്ലാം കൈയിലുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വേടിച്ചിട്ടു ഒരു വൺ ഇയർ ആയില്ല ഇതുവരെ അത് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഇനി അതിന് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും പിടിച്ചോ എന്ന് നോക്കി അതിൻ്റെ ക്ലീനിങ് ഒക്കെ നോക്കി ബാക്കി എല്ലാം കറക്ട് ആയിട്ട് തന്നെ ആണ് ഇരിക്കുന്നത് പിന്നെ എനിക്ക് ഇത് നമ്മൾക്ക് അത് കൂടുതൽ അറിയില്ലല്ലോ അപ്പോൾ നിങ്ങളെ പോലുള്ളവരൊക്കെ വന്നാൽ നിങ്ങൾക്കല്ലേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റൈല് ആയിട്ട് അറിയാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്പര് സംഘടിപ്പിച്ചു തന്നെ വിളിച്ചത് ആ സ്പീഡ് അപ്പ് ആക്കാൻ നോക്കണേ ഒന്ന് ആ ഒക്കെ ഒക്കെ ശരി ശരി താങ്ക് യൂ